തലവേദന മാറ്റാന് എൻ്റെ ഗ്രാമത്തിലെ പ്രചാരത്തിലുള്ള നാട്ടുവൈദ്യമെന്ന് പറഞ്ഞാല് കിഴിപ്രയോഗമാണ് കിഴി കെട്ടിയിട്ട് അതിൽ നിന്ന് എണ്ണ തലയിലേക്കാക്കി അങ്ങനെ തലവേദന മാറ്റുന്നൊരു രീതിയാണ് ആ എണ്ണയുടെ തണുപ്പും ആ ഒരു എണ്ണയുടെ കൊഴുപ്പും എല്ലാം കൂടെ ചേരുമ്പോള് നമുക്ക് തലവേദനയിൽ നിന്ന് മികച്ചൊരു ശമനമുണ്ടാകും ഇത് എല്ലാ നാട്ടുവൈദ്യങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ തുളസി അരച്ച് തേക്കുകയും ഇതെല്ലാം പനിക്കൂർക്ക അരച്ചിടുക ഇതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ തലയില് നന്നായിട്ട് അമർത്തി തിരുമുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് ഇതൊക്കെ തലവേദനയ്ക്ക് ശമനം നൽകുന്നതാണ്